എന്നോടിപ്പം ചോദിച്ചത് എവിടെയിരുന്നാണ് വായിക്കുക അല്ലെങ്കിൽ വായിക്കാൻ വേണ്ട അന്തരീക്ഷം എന്താണെന്ന് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സ്ഥലത്ത് ഇരുന്നാൽത്തന്നെ വായിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ശബ്ദം അധികമില്ലാത്ത സന്തോഷമായിരിക്കാൻ പറ്റുന്ന അധികം ഡിസ്റ്റർബൻസ്സില്ലാത്ത ഒരു സ്ഥലം തന്നെയായിയ്ക്കണമെന്നില്ല എനിക്ക് തോന്നുന്നു വായന ഇഷ്ടപ്പെടുന്ന ആർക്കും എവിടെ വേണോ ഇരുന്ന് വായിക്കാൻ കഴിയും അത്രത്തോളം നമ്മൾ വായനയിൽ മുഴുകി പോകുന്ന ആളാണെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലം നമുക്കൊരു പ്രശ്നമേയല്ല എത്രത്തോളം ബഹളമുള്ള സ്ഥലത്താണെങ്കിലും എത്രയേറെ ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു വട്ടം നമ്മൾ വായനയിലോട്ടു പോയിക്കഴിഞ്ഞാൽ അതാ അതു നമ്മുടെ ലോകമായിട്ടു മാറും ഒരാൾ സിനിമ കാണാൻ വേണ്ടി പോയി ഇരിക്കുമ്പോൾ അയാൾക്കു ചുറ്റും ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ ബഹളം നടക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും അയാൾ ശ്രദ്ധിക്കാറില്ലല്ലൊ ടീ വിയിൽ മുഴുകിയാൽ നമ്മളിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വായി വായിക്കുന്നൊരാൾക്കും ചില വായന ഇഷ്ടപ്പെടുന്ന ആലുകളുണ്ട് സ്വന്തം മുറിയിൽ ഒരു സ്ഥലം അവർക്കു വായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും അവരവിടെ ഇരുന്നായിരിക്കും ബുക്ക് വായിക്കുന്നത് സമാധാനം അല്ലെങ്കിൽ അധികം ശബ്ദമില്ലാത്ത അങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ വായനയിലേക്കു മുഴുകിയിരിക്കുന്ന ആളുകളുണ്ട് അല്ലാതെ ചിലരുണ്ട് എത്രത്തോളം ശബ്ദമുള്ള ബസ്സിലാണെങ്കിലും കല്ല്യാണ വീട്ടിലും അവിടെയൊക്കെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടു വായിക്കുന്നവരുണ്ട് അവർക്കൊരിക്കലും അവരുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളൊ അവർക്കു ചുറ്റും നടക്കുന്ന ശബ്ദങ്ങളൊ ഒന്നും ഒരുവട്ടം ബുക്ക് തുറന്നു കഴിഞ്ഞാൽ തലയിലേക്കു കയറണമെന്നില്ല ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നായിരിക്കും അവർ പുസ്തകം വായിക്കുന്നത് എന്ന സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബുക്ക് വായിക്കുന്നവരാണ് വായനയെ ഇഷ്ടപ്പെട്ട് ബുക്ക് വായിക്കുന്നതു കാരണം ജീവിതത്തിലൊരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്നു നമുക്ക് മാറി നിൽക്കാനല്ലെങ്കിൽ ഒരു അഞ്ചു നിമിഷത്തേക്കു വേറെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനൊ നമുക്ക് സന്തോഷം തരാനൊ പറ്റുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് എത്രത്തോളമിഷ്ടപ്പെട്ടു ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അതു നമുക്കു തരുന്ന ഇമ്പാക്റ്റ് അപ്പോൾ വായിക്കാൻ ഇന്നൊരന്തരീക്ഷം വേണം എന്നു ഞാനൊരിക്കലും പറയില്ല കാരണമെനിക്കിന്ന അന്തരീക്ഷം വേണമെന്നില്ല ബുക്കെ ബുക്കെന്റെ കയ്യിൽത്തന്നു കഴിഞ്ഞാൽ ഞാനുടനെ വായിയ്ക്കാൻ തുടങ്ങ തുടങ്ങാറാണ് പതിവ് അത് ഇന്ന സ്ഥലത്ത് സമാധാനമായി മിണ്ടാതെ ഇരുന്ന് എന്നൊന്നും എനിയ്ക്കങ്ങനെ ഒന്നുമില്ല എവിടെ ഇരുന്നാണെങ്കിലും വായിക്കാനെനിക്ക് ഇഷ്ടമാണ് വായനയെ എനിക്കത്രത്തോളം സന്തോഷം തരുന്നൊരു കാര്യമായതു കൊണ്ട് ഞാനൊരിക്കലുമൊരന്തരീക്ഷം വേണമെന്ന് വാശിപിടിച്ച് നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല എവിടെ ഇരുന്നാണെങ്കിലും പുസ്തകം തന്നാൽ മതി ഞാൻ പുസ്തക വായനയിലേക്കു മുഴുകിപ്പോകും അപ്പോൾ നല്ലപോലെ വായിക്കുന്ന ആർക്കും അങ്ങനെ ഒരിടത്തിരുന്നെ വായിക്കു അല്ലെങ്കിൽ അതിന് അന്തരീക്ഷം വേണമെന്നു നിർബന്ധമില്ല